ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി നാല് രണ്ടായിരത്തി അഞ്ച് മാർച്ച് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഏപ്രിൽ എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഫെബ്രുവരി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട്